ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ് എൻ്റെ മൊബൈൽ ഫോണൊന്ന് നിലത്ത് വീണിട്ടത് ഭയങ്കരമായിട്ടത് ബെന്റായി പോകുകയും അതിൻ്റെ സ്ക്രീനൊക്കെ പോകുകയും ചെയ്തിരുന്നു ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ച് കൊണ്ടിരുന്ന ഫോൺ എന്ന് പറയുന്നത് വൺ പ്ലസ് ആയിരുന്നു അപ്പോൾ അത്രയും കംഫോർട്ടായൊരു ഫോൺ ഞാൻ ഉപയോഗിച്ചിട്ട് ഞാനിനി പുതിയൊരു ലോക്കൽ ഫോൺ ഉപയോഗിക്കാൻ എനിക്ക് പറ്റില്ലാത്തത് കൊണ്ട് ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്തു മൂന്നാല് മാസത്തോളം ഞാൻ നല്ലൊരു ഫോണിന് വേണ്ടീട്ട് വെയ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ അവസാനം ഈ ഫോൺ എടുത്തത് ഫോണിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫോണാണ് കാരണം എനിക്ക് ഞാനിതിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു മാസം ആവുന്നതേ ഉള്ളതെങ്കിൽ പോലും എനിക്ക് അത് ഭയങ്കര ഇഷ്ട്ടപ്പെട്ടു അതിൻ്റെ ക്യാമറ ക്ലാരിറ്റിയും അതും ഇതും അതിൻ്റെ സൗണ്ട് സിസ്റ്റവും പിന്നെ അതിൽ ഓരോ ഫീച്ചേഴ്സം എല്ലാം ഭയങ്കര അട്രാക്റ്റീവാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ ക്യാമറയാണ് ആരു കണ്ടാലും അത്രക്ക് ഇഷ്ട്ടപ്പെടുന്ന ക്യാമറയാണ് എനിക്ക് എൻ്റെ ഫോണിനുള്ളത് അത്രക്ക് നല്ല ക്ലാരിറ്റി ഉള്ളതും നല്ല വിഷ്വൽസ് ഉള്ളതും എല്ലാം ആണ് ക്യാമറ അതിൻ്റെ ഓരോ ഇതാണെങ്കിലും നമ്മുടെ ഐ ഫോണിനോട് ഏറെക്കുറേ സാമ്യമുള്ളതാണ് നമ്മൾ ക്യാമറയിലെടുക്കുന്ന പോലെ തന്നെയാണ് നമ്മളതിൽനിന്ന് ഒരു പിക്ക് എടുക്കുമ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കാ ക്യാമറയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടായത് പിന്നെ പറയുകയാണെങ്കിൽ അതിൽ നല്ല സ്റ്റോറേജ് ഉണ്ട് പിന്നെ ഈ എൻ്റെ ആദ്യത്തെ ഫോൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ വൺ പ്ലസിന് മുമ്പെടുത്ത ഫോൺ എന്നക്കെ പറയുന്നത് പെട്ടന്ന് ഹീറ്റാകുമായിരുന്നു വൺ പ്ലസാണെങ്കിലും ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തൊട്ട് കുറേ ഇങ്ങനെ ഹീറ്റാവാൻ തുടങ്ങിയിരുന്നു പക്ഷെ ഇവിടെ എനിക്കത്രയ്ക്ക് ഇത് ഫീലാകുന്നില്ല അവര് ഇതിനു വാറൻറ്റിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഡാമേജായാൽ അവര് തന്നെ മാറ്റി തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം എന്നെ കൂടുതൽ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുകയാണ് നമുക്ക് ചെയ്തത് അതിന് കുറേ കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട് പോസിറ്റീവ് കാര്യങ്ങള് എന്താണെന്നുവെച്ചാല് അത് പെട്ടന്ന് ഹീറ്റാവുന്നില്ല കുറേ നേരം ചാർജ് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട് പിന്നെ ബാറ്ററിയാണെങ്കിലും കുറേ നേരം നിൽക്കുന്നുണ്ട് ബാറ്ററി എത്രയാ അയ്യായിരം എം എച്ചിൻ്റെയാണ് വരുന്നത് അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അതിൽ ക്യാമറയാണ് ഏറ്റവും കൂടുതലിഷ്ടപ്പെട്ടത് ആദ്യത്തെ എൻ്റെ ഫോണെന്ന് പറയുമ്പോൾ അതിൽ ഞാനിപ്പോൾ ഒരാളോട് സംസാരിച്ച് കൊണ്ടിരിക്കുമ്പോൾ അതിൽ എക്സ്ട്രാ വോയ്സൊക്കെ കയറി വരുമായിരുന്നു അതിൻ്റെ സൗണ്ടിൻ്റെ സിസ്റ്റം എന്ന് പറയണത് അത്രയ്ക്ക് ഓക്കെ അല്ലായിരുന്നു ഇപ്പോൾ വൺ ഐ ഫോണിലാണെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്യൂസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ വൺ പ്ലസിൽ എനിക്ക് അങ്ങനെ ചെറിയതായിട്ടൊരു ഒരൊറ്റ വട്ടം ഇഷ്യു ഉണ്ടായി അപ്പോൾ ഞാനത് സർവീസ് സെൻ്ററിൽ പോയി കാണിച്ച് പിന്നെ അത് ഓക്കെ ആകുകയാണ് ചെയ്തത് പക്ഷെ ഇതില് എനിക്ക് ഇത്ര നാളായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല നല്ല ഫോണാണ് ഇതിൻ്റെ സൗണ്ടിൻ്റെ ക്ലാരിറ്റിയാണെങ്കിലും ക്യാമറ ക്ലാരിറ്റിയാണെങ്കിലും അതിലെ സ്റ്റോറേജാണെങ്കിലും ഹീറ്റാണെങ്കിലും ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിലും അങ്ങനെ ഹീറ്റിങ്ങൊന്നും ആവുന്നേ ഇല്ല ഞാൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഗെയിമൊക്കെ പബ്ജി ഫ്രീഫയറൊക്കെ കളിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഞാനിങ്ങനെ ഫ്രീഫയറും പബ്ജിയൊക്കെ എത്ര നേരം വേണേമെങ്കിലും കളിക്കുകയാണെങ്കിൽ പോലും ആ ഫോണൊന്നും ഹീറ്റാവുന്നില്ല അതുപോലെ ഒരുപാട് നേരം ഞാൻ നെറ്റ് യൂസ് ചെയ്തിട്ടും ഡാറ്റ യൂസേജെല്ലാം നടത്തിയിട്ടും അതിൻ്റെ ചാർജ് കുറയുകയോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നീട്ടില്ല കാരണം എന്നും ഇതിൻ്റെ ബാറ്ററിയെന്ന് പറയുന്നത് ഫാസ്റ്റ് ചാർജിങ്ങാണ് അതുകൊണ്ട് തന്നെ പെട്ടന്ന് ചാർജാവും കുത്തിയിട്ടൊരു പത്തിരുപത് മിനിറ്റാകുമ്പോഴത്തേക്കും ഫുൾ ചാർജാകുന്നതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പെട്ടെന്നെളുപ്പമാണ് അതുപോലെ എല്ലാം ലൈറ്റ് വെയിറ്റാണ് ഓവർ വെയിറ്റൊന്നുമില്ലാത്ത ഫോണാണ് നമുക്ക് സിമ്പിളായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ് എനിക്ക് എന്തായാലും ഈ ഫോൺ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ട്ടപ്പെട്ടിട്ടുണ്ട്